വാകത്താനം എലക്ട്രിസിറ്റി ബോഡിൻ്റെ ഓഫീസല്ല സാറേ ഞാൻ വിളിച്ചതെ എൻ്റെ കഴിഞ്ഞ മാസത്തെ രണ്ട് മൂന്ന് മാസത്തെ വൈദ്യുതി ബില്ല് കാണാതെ പോയി അത് നഷ്ടപ്പെട്ട് പോയി എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എനിക്കൊന്ന് സെൻഡ് ചെയ്തു തരാമോ മെയിലിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ എന്ത് എങ്ങനെയാണെങ്കിലും ഞാൻ എനിക്കിങ്ങു തന്നാൽ മതി ഞാൻ അതിൻ്റെ കോപ്പി എടുത്തോളാം കഴിഞ്ഞ വർഷത്തെ മുഴുവൻ പന്ത്രണ്ട് മാസത്തെയും കൂടെ ബില്ലെത്രയെന്നുള്ളതൊരു ഒരു കോപൗണ്ടിങ്ങ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ തരുവാണേ നല്ലതായിരുന്നു അയച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കേ നന്ദി